ഹലോ ആ തേങ്ങ കച്ചവടം നടത്തുന്ന ഒരു കൂട്ടരാണല്ലോ ആ അപ്പം അവിടെ ആ അപ്പം അവിടെ ഇഷ്ടംപോലെ തേങ്ങ കാണുമല്ലോ ഞങ്ങൾക്ക് ഒരു കല്ല്യാണ ആവശ്യത്തിന് കുറെ തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പം ഒരു പത്ത് പത്ത് നൂറ് തേങ്ങ ഉടനെ എടുക്കാൻ കാണുമോ കല്ല്യാണം ഒര് അഞ്ച് എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ട് ആ ഒരു പത്ത് ദിവസത്തിന് ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ ഉപകാരം ആ നൂറ് തേങ്ങ ആ നൂറ് തേങ്ങ എടുത്തത് കല്ല്യാണ ആവശ്യത്തിനാണ് പിന്നെ അഥവാ അത്രയും പോരാതെ വന്നാൽ ഒരു അൻപത് എണ്ണം കൂടി തരാനുള്ള ഇതും വേണം അവിടെ എത്തി ആ

ആ ഈ നൂറ് നൂറ് എണ്ണം അപ്പോൾ മേടിക്കും ആ ആ എന്നാ ആ പൊതി അപ്പോൾ നിങ്ങൾ പൊതിച്ചു തെരുമോ പൊതിക്കാതെ ആണോ അത് എങ്ങനെയാണ് തെരുന്നത് അത് ഞങ്ങൾ അപ്പം വണ്ടി അവിടെ ആ ഞങ്ങൾ ഞങ്ങൾ തേങ്ങ എടുക്കാൻ അവിടെ വരണോ അതോ നിങ്ങൾ ഇവിടെ എത്തിച്ചു തരുമോ എങ്ങനെ ആണ് ചെയ്യുക ആ ആ ആ പിന്നെ അപ്പം വെളിയിലുള്ള വിലയേക്കാൾ കുറച്ച് കുറവ് ഒക്കെ വരുത്തുകയില്ലേ നമ്മൾ ഇത്രയും തേങ്ങ ഇതുപോലെ ഒരു ആവശ്യത്തിന് ഒന്നിച്ച് എടുക്കുമ്പോൾ

ആ അങ്ങനെ അതെ ആ അങ്ങനെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് കാരണം നമ്മൾക്ക് വലിയ പണക്കാർ ഒന്നും അല്ല ആ അങ്ങനെ ഉള്ള സാധാരണക്കാരായ ആളുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പിന്നെ ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നതാണ് റബ്ബറും എല്ലാം വച്ച് തേങ്ങ എല്ലാം പോയതാണ് തെങ്ങ് എല്ലാം പോയി ആവശ്യത്തിന് ഉള്ള ആ ആ ആ അങ്ങനെ തരികയാണെങ്കിൽ വളരെ ഉപകാരം അപ്പോൾ ഞങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ തേങ്ങയെ നിങ്ങൾ അവരോട് നേരത്തെ പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് വരുന്നത് വരുന്ന വിവരം അവിടെ അറിയിക്കേണ്ടല്ലോ ആ നേരെ വന്നാൽമതി ആ അങ്ങനെ ശരി എന്നാൽ ശരി